ഹലോ ആ ഇത് എറണാകുളത്തുള്ളൊരു ഫാമിലി ആണേ എ വി ട്രാവൽസ് ആണോ ഇത് ആ ഞങ്ങൾക്ക് എറണാകുളം സൗ എറണാകുളം സൗത്തിൽ ഉള്ളതാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് നിലമ്പൂർ നിലമ്പൂർ മഞ്ചേരി പൂക്കോട് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടേ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് പാക്കേജ് ആയിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് പാക്കേജ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ട്രാവല്സിൽ ഞങ്ങൾ അഞ്ച് പേർ മാക്സിമം ഏഴ് പേർ അത്രേയുള്ളൂ അഞ്ച് ആ അഞ്ച് ആണോ ഏഴ് ആണോ എന്ന് നമ്മൾ കറക്റ്റ് ഡേറ്റ് ഒക്കെ അടുത്തെ ആഴ്ചയാണ് ആ അപ്പ് ആ ശരി അപ്പം ഈ ഇവിടെ അക്കൊമഡേഷനും ഫുഡ് ഒക്കെ നിങ്ങൾ തന്നെ ഏല്പിച്ച് തന്നോളുവോ ആ ഹാ ഹാ ആ ആ അതുശരി അപ്പം നമ്മൾ ഇവിടെ എത്തി എങ്കിലാണ് നിങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സെൻററുകളിൽക്കൂടെ കൊണ്ട് പോവുളളൂ അല്ല അവിടുന്ന് ആ ഓക്കെ ആ ശരി അങ്ങനെ ആ ആ ആ ആ ആ ആ അപ്പം താമസവും അതിൻ്റെ അൻ അയ് ചെലവുകൾ നിങ്ങൾക്ക് നമ്മൾ തന്നാൽ മതി നിങ്ങൾ കൊണ്ടുവരും ഇല്ലേ ട്ടു ഈ സെൻററുകളിൽക്കൂടെ കൊണ്ടുപോവുകയും ചെയ്യും ഇല്ലേ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞങ്ങൾ അടുത്തയാഴ്ച കറക്റ്റ് ഡേറ്റ് പറഞ്ഞ് ക കറക്റ്റ് നമ്പർ എണ്ണവും പറഞ്ഞ് അടുത്ത രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയിക്കാം കേട്ടോ ആ ഓക്കെ